എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ബിരിയാണിയാണ് എന്തുകൊണ്ടാണെന്നു വച്ചാൽ എത്ര കഴിച്ചാലും മടുക്കില്ലയെന്ന് പറയാൻ പറ്റില്ല ഇന്നു കഴിച്ചാൽ നാളെ ഇപ്പം ബിരിയാണി കിട്ടണം എന്ന് ബിരിയാണി ഉണ്ടെങ്കിൽ നാളെയും കഴിച്ചു തുടർച്ചയായിട്ട് കഴിക്കാൻ പറ്റില്ലയെന്നെ ഉള്ളു പിറ്റേ ദിവസം കഴിച്ച് കിട്ടിയാലും ബിരിയാണി കഴിച്ച് പോവും അപ്പോൾ പിന്നെ കുറച്ച് കഴിച്ചാൽ മതി അപ്പോഴത്തേക്കും നല്ല വയറൊക്കെ ഫുൾ ആവുന്ന പോലെ തോന്നും ഭയങ്കര ഇഷ്ടമാണ് അതിന്റെ ഒരു ടേസ്റ്റുതന്നെ പ്രത്യേകിച്ച് അങ്ങനെ പറയാനില്ല അതിന്റെ രുചി ഭയങ്കര ഇഷ്ടമാണ്